കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ആരോഗ്യ സംരക്ഷണ സംവിധാനം ഒത്തിരി ആണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നും ഒരുപാട് ആൾക്കാര് എ എന്ത് ഇപ്പോൾ ഓപ്പറേഷൻ ആയിക്കോട്ടേ എം ആർ ഐ സ്കാനിംഗ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പല ആശുപത്രികളിലായിട്ടും എത്തുന്നുണ്ട് ഇപ്പം നമുക്ക് സാമ്പത്തികമായും മുൻതുക്കം നിൽക്കുന്നവർക്കായിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികം മുൻതൂക്കം ഇല്ലാത്തവർക്ക് ആയിക്കോട്ടെ എല്ലാ ആർക്ക് എങ്ങനെ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലേക്കും പോകാൻ വേണ്ടിയിട്ടും കോഴിക്കോട് ജില്ലയിൽ എത്താറുണ്ട് ഇപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇക്ര ഹോസ്പിറ്റൽ മല മലാപ്പറമ്പിലുള്ള ഇക്ര ഹോസ്പിറ്റൽ അതുപോലെ ഫാത്തിമ ഹോസ്പിറ്റൽ അതുപോലെ സർക്കാർ ആശുപത്രികൾ നാദാപുരത്തുള്ള സർക്കാർ ആശുപത്രികൾ ഇവയൊക്കെ തന്നെ ഇവയൊക്കെ തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് ഫെസിലിറ്റി നൽകുന്ന ഹോസ്പിറ്റലുകളാണ് അതുപോലെ തന്നെ ഫാത്തിമ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ഇൻഷുറൻസ് നൽകുന്നത് കൊണ്ട് തന്നെ ഇപ്പം പ്രസവത്തിനായിക്കോട്ടെ ഓപ്പറേഷന് ആയിക്കോട്ടെ അതുപോലെ ഇപ്പോൾ പിന്നെ ഹൃദയാഘാതം ഉള്ളവരായിക്കോട്ടെ കാൻസർ പേഷ്യൻസ് ആയിക്കോട്ടെ ഒരുപാട് ആൾക്കാർ കോഴിക്കോട് എത്താറുണ്ട് ഇവർക്കൊക്കെ ഒരുപാട് ഇൻഷുറൻസും കിട്ടുന്നുണ്ട് അതല്ലാതെ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു വേ ഒരു ഹോസ്പിറ്റൽ ആണ് മെഡിക്കൽ കോളേജ് നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന അല്ലെങ്കിൽ ഗവൺന്മെന്റ് നൽകുന്ന ഒരു ഫെസിലിറ്റി ഉള്ള അല്ലെങ്കിൽ മരുന്നുകൾ ആയിക്കോട്ടെ അവിടെ ഉള്ള പിന്ന ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ അവിടെ ഉള്ള ഓക്സിജൻ മാസ്കുകൾ ആയിക്കോട്ടെ എല്ലാം തന്നെ സിലിണ്ടർ ആയിക്കോട്ടെ എല്ലാം തന്നെ ഗവെർന്മെന്റ് സർക്കാർ നല്കുന്നതായത് ആയത് കൊണ്ട് തന്നെ അധിക ചിലവില്ലാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ പിന്നെ എല്ലാവരെയും കൊണ്ട് വന്ന് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് മെഡിക്കൽ കോളേജ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പം സാമ്പത്തിക മുൻതൂക്കം നൽകുന്നവർക്ക് ഒക്കെയും ഒരുപാട് ബേബി മെമ്മോറിയൽ ഉണ്ട് അതുപോലെ മിംസ് ഉണ്ട് അവിടെ ഒക്കെ കൊണ്ട് വന്ന് നല്ല രീതിയിൽ ചികിത്സ കൊടുത്തിട്ട് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാതെ ഒരു ഇപ്പോൾ ഒരാൾക്കാർ പോലും ചികിത്സ ഇല്ലാതെ മരണപെടേണ്ടതായിട്ട് ഇപ്പം വരുന്നില്ല അതീ കോഴിക്കോട് ജില്ലയിലായിക്കോട്ടെ കേരളത്തിൽ എവിടെയും ആയിക്കോട്ടെ ആരും ഇപ്പൊൾ ഇപ്പം പെട്ടെന്ന് തന്നെ ആക്സിഡന്റ് എന്തെങ്കിലും കേസ് വന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കാനും അതുപോലെ ആമ്പുലൻസ് ആയിക്കോട്ടെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഒരു നമ്പർ ഞെക്കുമ്പോൾ തന്നെ മുന്നിൽ എത്തുന്ന ആംബുലൻസ് സൗകര്യം ഇപ്പം ആദ്യം ഒന്നും അത് ഇല്ല എന്നാൽ ഇന്ന് ഒരുപാട് ആംബുലൻസുകൾ അവൈലബിൾ ആണ് ഇപ്പം ഹോസ്പിറ്റലിൽ എന്ത് കേസ് ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും വേറൊരു ജില്ലയിലുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആംബുലൻസിൽ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് ഇപ്പം നമുക്ക് പിന്നെ വേന്റിലേറ്റർ ആയിക്കോട്ടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പ്രസവിച്ച് വീഴുന്ന കുട്ടികളിൽ തന്നെ ഒരുപാട് വെന്റിലേറ്റർ സൗകര്യത്തിലാണ് ശ്വസിക്കുന്നത് ഇപ്പോൾ ഒന്നൊന്നര മാസം വെന്റിലേറ്ററിൽ കിടന്ന് ശ്വാസം തിരിച്ച് കിട്ടി ജീവൻ നിലനില്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് ചെറിയ പൊടി കുഞ്ഞുങ്ങൾ ഉണ്ട് അവർക്കൊക്കെ ഇന്ന് ഒരുപാട് ഒരുപാട് ആരോഗ്യമെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ആരുടേയും ജീവിതം മരണത്തിലേക്ക് ചികിത്സ കിട്ടാതെ പോകുന്നില്ല എല്ലാവർക്കും ചികിത്സ കിട്ടുന്നുണ്ട്